ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുറച്ച് വാർത്തകളെന്തെന്ന് വെച്ചാൽ ഇസ്രേയ്ലും പലസ്റ്റീനും തമ്മിലുള്ള യുദ്ധങ്ങൾ അത് എല്ലാ ദിവസവും എല്ലാ ദിവസവും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു വാർത്തയാണത് ഇപ്പം ഇസ്രയിൽ എത്ര മിസൈൽസ് പലസ്റ്റീനിലോട്ട് വിടുന്നു പലസ്റ്റീൻ എത്ര മിസൈൽസ് തിരിച്ച് ഇസ്രേയ്ലോട്ട് വിടുന്നു എത്ര പേര് മരിക്കുന്നു എന്തൊക്കെ വിഷയങ്ങൾ അത് അത് പ്രമാണിച്ച് ഉണ്ടാകുന്നു അതിനെപ്പറ്റി ഒരുപാട് വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെയൊരു വേറൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം എക്സ്ട്രീം ആയ വാർത്തകൾ തായത് ഐ എസ് ഐ എസ് അല്ലെങ്കിൽ അങ്ങനെത്തെ തീവ്രവാദ സംഘടനകളുടെ ഓരോ ആക്റ്റിവിറ്റിയും അങ്ങനത്തെപരമായ ഒരുപാട് വാർത്തകൾ നമുക്ക് ന്യൂസ്കളിൽ കാണാൻ സാധിക്കുന്നതാണ് ഇസ്രയേൽ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ എത്ര പേര് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നോ അതിനെ പറ്റിയുള്ള വാർത്തകളും പിന്നെ എത്ര എത്ര ആൾക്കാർ എതിർക്കുന്നു ആ വാർത്തകളും പിന്നെ പലസ്റ്റീൻ പലസ്റ്റീനെ എത്ര രാജ്യങ്ങൾ സഹായിക്കുന്നു എത്ര രാജ്യങ്ങൾ വെറുക്കുന്നു അതായത് സഹായിക്കാതിരിക്കുന്നു ഇതിനെപ്പറ്റിയുള്ള ന്യൂസ്കളും ഇതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻ നമുക്ക് വാർത്തകൾ ലഭിക്കുന്നതാണ് ഇത് യുദ്ധത്തിൻ്റെ ബേസ്ഡ് ആയ ഒരു വാർത്തയാണ് പിന്നെ കാണാൻ സാധിക്കുന്നത് എന്തെന്നുവെച്ചാൽ ഒര്പാട് നമ്മുടെ നാട്ടിൽത്തന്നെ ഒരുപാട് മരണ ഒരുപാട് മർഡേഴ്സ് കൊലപാതകങ്ങളും കുറേ കള്ളക്കടത്തും അങ്ങനത്തെ ഒരുപാട് പരമായ വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ഈയിടെ ഇറങ്ങിയ ഒരു വാർത്തയാണ് അത് ഗോൾഡ് സ്മഗ്ലിങ് അതായത് സ്വർണ്ണക്കടത്ത് എയർപോട്ടിൽനിന്ന് കണ്ടെത്തി അതായത് ഒരുപാട് പേര് ഗോൾഡ് സ്മഗ്ള് ചെയ്യുന്നുണ്ട് അത് പല പല വെറൈറ്റി വേസിൽകൂടെയാണവർ സ്മഗ്ള് ചെയ്യുന്നത് ചിലർ അതൊക്കെ വിഴുങ്ങും ചിലർ അതൊക്കെ ഷൂൻറ്റെ അടീലും ലൈക്ക് ഷേർട്ടിൻറ്റെ ഇടയ്ക്കും ഒക്കെ ഇങ്ങനെ കയറ്റിവെച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇങ്ങനെത്തെ ഒരുപാട് ന്യൂസ്കൾ നമുക്ക് ഡേറ്റുഡേ ലൈഫിൽ ഇപ്പം ഈ ദിവസങ്ങൾ ആയിട്ട് കേൾക്കുന്നുണ്ട് പിന്നെയുള്ളത് അപകടങ്ങൾ ആക്സിഡൻസ് ഇപ്പം ഈയിടെ നമ്മുടെ പെരുവന്താനം കഴിഞ്ഞൊരു സൈഡ് അവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് കൊക്കയിലോട്ട് വീണ് അങ്ങനെ പോകുന്നതായിട്ട് ഉള്ളൊരു വിവരം നമുക്ക് അറിയുന്നുണ്ട് നമ്മളത് ആ വാർത്തയിലൂടെ അറിഞ്ഞു ആ ബസ്സ് ബസ്സിൽനിന്ന് നാല് പേര് മരിച്ചു ബാക്കിയെല്ലാവരും രക്ഷപ്പെട്ടു അപ്പം അത് ഒരു ന്യൂസ് ആണ് അത് ലേറ്റസ്റ്റ് ആയി വന്ന ഒരു ന്യൂസ് ആണ് അപകടം പിന്നെ വേറൊരു ന്യൂസ് എന്ന് വെച്ചാൽ സ്പോർട്സ്പരമായ വാർത്തകൾ അത് ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോള് ആണെങ്കിലും അങ്ങനെ കേൾക്കുന്നുണ്ട് ഇപ്പം മെയ്ൻലി പിന്നെ കൊലപാതകങ്ങൾ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അത് കോളേജ്കളിൽ ആണേലും കോളേജ്കളിൽ ആണേലും വീടുകളിൽ ആണേലും അങ്ങനെ പല പല സ്ഥലത്തൊക്കെയായിട്ട് പാർട്ടിപരമായ കൊലപാതങ്ങളെല്ലാം ഒരുപാട് അങ്ങനെ നടക്കുന്നുണ്ട്